ആ നമസ്ക്കാരം നമസ്ക്കാരം ഇത് ആരാണ് പേര് ശ്രീജിത്ത് ഓക്കേ എത്രാം ക്ലാസ്സിലാണ് ആ ഒക്കെ ഒക്കെ പറഞ്ഞോളൂ പറഞ്ഞോളൂ എന്തേ ശ്രീജിത്താണോ ശ്രീജിത്തിൻ്റെ ടീച്ചർ ഈ ദിവസങ്ങളിൽ സ്റ്റാഫ് മീറ്റിംഗിൽ ടീച്ചേർസ് മീറ്റിങ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് പഠിത്തത്തിലൊക്കെ കുറച്ചു ഉഴപ്പാണെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഡിസിപ്ലിൻ മറ്റ് മറ്റ് സ്കൂൾ ഡിസിപ്ലിൻ്റെ കാര്യങ്ങളിൽ ഒക്കെ ഇച്ചിരി കുറവാന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തത് അഹ് കുറച്ചു അതെന്താച്ചാല് ചില കുട്ടികൾ വീട്ടിൽ വളരെ നല്ല കുട്ടികളായിരിക്കും ചില കുട്ടികൾ സ്കൂളിൽ വളരെ നല്ലതായിരിക്കും വീട്ടിൽ ഭയങ്കര മോശമായിരിക്കും അപ്പം ഇതിലിപ്പോൾ നിങ്ങളുടെ മകൻ വീട്ടിൽ ഭയങ്കര നല്ല കുട്ടിയാണെന്നാണല്ലോ നിങ്ങൾ പറയുന്നത് സ്കൂളിൽ പക്ഷെ അവൻ മറ്റ് കുട്ടികളുമൊക്കെയായിട്ട് അപ്പോൾ ഞാൻ ഒന്ന് ചോദിക്കട്ടെ മോൻ ഒരാളെ ഉള്ളോ വീട്ടിൽ മറ്റ് കളിക്കാനും അങ്ങനെ അല്ല ഒരാളെ ഉള്ളു അല്ലേ ആ അതൊരു ചെറിയ പ്രശ്നമാണ് ചെറിയ പ്രശ്നം മീൻസ് ഒന്ന് ആയതു കൊണ്ടല്ല പിന്നെ അവനെ വീട്ടിൽ കളിക്കാനും മറ്റ് കൂട്ടു കൂടാനൊന്നും ആളില്ലല്ലോ സ്കൂളിൽ വരുമ്പോൾ അതിനുള്ള ഇഷ്ടംപോലെ ആൾക്കാരും കൂട്ടുകാരുമൊക്കെ വരുമ്പോൾ അവൻ ആ ഒരു സ്വാതന്ത്ര്യം കുറച്ചു കൂടുതൽ അങ്ങു എടുക്കാന്നത് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നേ അപ്പം അതുകൊണ്ടായിരിക്കും അപ്പം അവനെ വീട്ടിൽ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് അവൻ വളരെ സൈലൻ്റായിട്ടു നന്നായിട്ട് പെരുമാറുന്നുണ്ടാവും അപ്പോൾ അവനു ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം നിങ്ങൾ തൊട്ടടുത്തുള്ള കുട്ടികളുമായിട്ടൊക്കെ മിങ്കിൾ പിന്നെ ഇടപഴകാനും കളിക്കാനുമൊക്കെ അവനെ വിടുക അപ്പോൾ അവനു ആ ഒരു അവൻ്റെ ആ ഒരു എന്താണ് പറയുക പിന്നെ ഒറ്റക്കുള്ള അവസ് ഏകാന്തത ഏകാന്തത ഇല്ലാതാകുമ്പോൾ അവന് ഇവിടെ സ്കൂളിലും രണ്ടു സ്ഥലത്തും അവനു അനുഭവപ്പെടുന്ന ആ വ്യത്യസ്തമായ സാഹചര്യങ്ങളായിരിക്കാം ഒരു പക്ഷെ അവനെ ഈ ഒരു കുഴപ്പത്തിൽ കൊണ്ടുവന്നത് അപ്പോൾ നമ്മൾ ഇവിടെ സ്കൂളിൽ

തീർച്ചയായിട്ടും ശ്രദ്ധിക്കാം അങ്ങനെ അക്രമാസക്തനൊന്നും ആവുന്നില്ല പക്ഷെ കുറച്ചു ചെറിയ തരത്തിലുള്ള കുരുത്തക്കേടൊക്കെ അവൻ്റെ കയ്യിലുണ്ട് അപ്പം അത് ഇപ്പം നിങ്ങൾ പറഞ്ഞതു കൊണ്ട് ഈ ഒറ്റക്ക് വളരുന്ന കുട്ടികൾക്കുണ്ടാവുന്ന ചെറിയ പ്രശ്നങ്ങളാണെന്നെ എനിക്ക് ഇപ്പോൾ മനസ്സിലായത് അത് നമ്മൾ ഇപ്പം ഒറ്റക്കെന്നുളളത് നമുക്ക് അത് മാറ്റാൻ പറ്റില്ല പകരം നമ്മൾ അവന് കൂടുതൽ സാഹചര്യങ്ങൾ കളിക്കാനൊക്കെയുള്ള സാഹചര്യം വീട്ടിൽ ഒരുക്കി കൊടുക്കാൻ വീട്ടിലല്ല വീടു തൊട്ടടുത്തെ വീട്ടിലേ കുട്ടികളുമായൊക്കെ മിങ്കിൾ ചെയ്ത് കളിക്കാനൊക്കെയുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നന്നായി അവൻ പതുക്കെ പിന്നെ ചെറിയ കുട്ടിയല്ലേ അഞ്ചാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നുള്ളൂ അതൊക്കെ വലുതാകുമ്പോൾ അതൊന്നു ശരിയായി പൊക്കോളും ചെറുപ്പത്തിൽ നമുക്ക് കുട്ടികളെ ആ വിധത്തിലൊന്നും അസ്സസ്സ് ചെയ്യാൻ പറ്റില്ല അവരെ നന്നാക്കുക എന്നുള്ളതാണ് നമ്മൾ രണ്ടു കൂട്ടരുടെയും ലക്ഷ്യം നമ്മൾ അവരെ ആ വിധത്തിൽ ഇവിടെ ഞങ്ങൾ അതിനെ വലിയ ഒരു ഇഷ്യൂ ആയിട്ടൊന്നും കണ്ടിട്ടില്ല അത് കാലേ കാലേ പിന്നെ പതുക്കെ പതുക്കെ പൊയ്കൊള്ളും എന്നുള്ള ഒരു ചിന്തയാണ് ഞങ്ങക്കുള്ളത് അത് നാന്നായിക്കൊള്ളും ടീച്ചറേ നിങ്ങൾ അതിനെ കുറിച്ച് വിഷമിക്കണ്ട ഓക്കേ ടീച്ചറേ അലോ ഓക്കേ താങ്ക് യു